ഹലോ സ്വിഗ്ഗി അല്ലേ ഞാൻ ചമ്പക്കുളത്തുനിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഉച്ചയ്ക്ക് ഒരു ഒരു മണിയാകുമ്പോൾ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് കിട്ടണം ഒരെണ്ണമല്ല ഒരു അഞ്ച് പാഴ്സല് എത്തിക്കണം അത്യാവശ്യമാണ് അത് ആലപ്പുഴയിൽ നിന്ന് ചമ്പക്കുളം വരെ എത്താനായിട്ട് എത്ര മണിക്കൂർ വേണ്ടി വരും അന്നേരം ഒരു മണിക്ക് എനിക്ക് കിട്ടത്തക്ക രീതിയിൽ നിങ്ങൾ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമോ നിങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്ന് ചമ്പക്കുളം വരെ വരാനായിട്ട് എത്ര സമയമെടുക്കും എന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടോ അതേക്കുറിച്ച് എന്തെങ്കിലും എന്താണ് അറിയാൻ പറ്റുന്നത് ഒരു മണിക്കൂറിന് മുമ്പായിട്ട് എനിക്ക് ഫുഡ് ഇവിടെ വീട്ടിലെത്തിയിരിക്കണം അതിനുള്ള സജ്ജീകരണനങ്ങൾ എന്നതാണെന്നു വെച്ചാൽ ചെയ്ത് തരണം